സർക്കാരിന്റെ ആപ്പുകളെ പ്രധാനമായിട്ടങ്ങനെ ഉപയോഗിക്കുന്നില്ല പിന്നെന്തെങ്കിലും ഒക്കെ ആവശ്യം വരുമ്പോൾ എന്നാ വെബ്സൈറ്റുകളിലൊക്കെ കയറി സർച്ച് ചെയ്യുകയും അങ്ങനെ ആപ്പ് സാ അവരുടെ സഹായം തേടുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങൾ ഒരു കാര്യത്തെ പറ്റി കൂടുതലറിവും കാര്യപ്രാപ്തിയും അതൊക്കെ കിട്ടാനായിട്ട് സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കാര്യത്തെ പറ്റി കൂടുതല് അറിവ് നേടുവാനും ആവശ്യമായിരിക്കുന്ന സമയങ്ങളിൽ ഒത്തിരിയധികം അത്തരത്തിലുള്ള വെബ്സൈറ്റുകളുടെ സഹായത്തോട് കൂടിയുള്ള ആപ്പുകളുടെ ടെ സഹായം ആവശ്യമായി വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒന്ന് ഒന്ന് ആണ് എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത് മാത്രമല്ല ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ അതിനായിട്ട് സർച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ വ്യക്തമായും കൃത്യമായും അതിനെപ്പറ്റി വളരെ വളരെ ശ്രദ്ധേയമായും ഒക്കെത്തന്നെയാണ് അതിനെപ്പറ്റി അറിയുവാനായിട്ടൊക്കെ സാധിക്കുന്നത് അതു കൊണ്ടൊക്കെ തന്നെ അത് പുരോഗമനം ആയിരിക്കുന്ന പുരോഗതിക്ക് വേണ്ടിയാണിപ്പോഴും എന്ന നിലയില് തന്നെയാണ് ഞാനതിനെ കാണുകയും ഒക്കെ ചെയ്യുക